സാമ്പത്തിക വാർത്തകൾ അറിയാം പറ്റുന്നത് യൂട്യൂബ് ചാനല് വഴിയാണ് ഞാൻ അറിയുന്നത് എനിക്ക് സ്വർണ്ണത്തിൻ്റെ വില പച്ചക്കറികളുടെ വില മുന്നിലത്തെ ലോഹത്ത് കാലാവസ്ഥ കാലാവസ്ഥയുടെ നിരീഷണങ്ങൾ പിന്നെ പെൻഷൻ കിട്ടുന്നത് മറ്റുള്ള എന്തു കാര്യങ്ങൾ അറിയുവാനും യൂട്യൂബ് ചാനല് വഴിയാണ് അറിയാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് പത്രങ്ങളും വാർത്തകളും നോക്കാതെ യൂട്യൂബ് ചാനല് വഴി എല്ലാ വിവരങ്ങളും അറിയുന്നത് എന്തു കാര്യമുണ്ടെങ്കിൽ അന്നന്നുള്ള കാര്യങ്ങൾ കറക്റ്റാട്ട് യൂട്യൂബ് ചാനൽ വഴി അറിയാൻ പറ്റും ടീ വിയിലൂടെയും പത്രങ്ങളിലൂടെയും നമുക്ക് കറക്റ്റായിട്ട് ഒന്നും അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് യൂട്യൂബ് ചാനല് വഴിയാണ് എല്ലാ വിവരങ്ങളും അന്നന്നുള്ള അപ്ഡേറ്റ് അന്നന്ന് തന്നെ അറിയാൻ പറ്റുന്നതുകൊണ്ട് യൂട്യൂബ് ചാനലാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്